ഇന്നത്തെ കാലത്ത് നമുക്ക് പല സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ദിവസേനയുള്ള വാർത്തകൾ കാണണമെങ്കിൽ വായിച്ച് അറിയണമെങ്കിൽ നമുക്ക് പ്രാദേശിക പത്രം അത്യാവശ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പത്രങ്ങൾ ഒരു ദിവസം കാണുന്നുണ്ട് എന്നാൽ വായനയുടെ അളവെന്ന് പറയുന്നത് ഇന്നത്തെ കാലം തലമുറയ്ക്ക് കുറയുന്നൊരു കാര്യമാണ് മ കാണാം അപ്പോൾ വായന കൂടണമെങ്കിൽ നമുക്ക് അന്നന്നുള്ള പത്രങ്ങൾ വായിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്കടെ വായനാശീലം വർദ്ധിപ്പിക്കാവുന്നത് മനുഷ്യന് ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് വായന വളരെ അധികം കുറയുന്നു എല്ലാവരും മൊബൈലിലും മറ്റ് സാങ്കേതിക വിദ്ധ്യയുടെ പുറകേ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വായനാശീലം കുറയുന്നതായിട്ട് കാണാം ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ പ്രാദേശിക ഭാഷയിലുള്ള അതേത് ഭാഷയായിക്കോട്ടെ എ ഏത് വ്യക്തി ഏത് സംസ്ഥാനത്തെ ആയിക്കോട്ടെ അവരുടെ പ്രാദേശിക ഭാഷയിലുള്ള പത്രം കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം നൽകുന്നു പ്രാദേശിക ഭാഷയിലുള്ള നമ്മുടെ പത്രത്തിലൂടെ ധാരാളം നമുക്ക് വിനിമയങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി അന്നന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ ലോകത്ത് നടക്കുന്ന വാർത്തകളും നമുക്ക് അറിയാൻ സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ പല പല പടങ്ങളിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനേകൊണ്ട് കഴിയും അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പത്രം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഭാഷ മാധ്യമമാണ് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം വ്യത്യസ്ത തരത്തിലുള്ള ഭാഷ പ്രാദേശിക ഭാഷ പത്രങ്ങൾ അമ്മക്ക് കാണാനെക്കൊണ്ട് കഴിയും അതിലൂടെ ഒത്തിരി പുതിയ പുതിയ നമുക്ക് അറിയാൻ വയ്യാത്ത പല കണ്ടെത്തലുകളും നമ്മൾ അല്ലെങ്കിൽ പല വാർത്തകൾ നമ്മൾ അറിയുന്നത് ഭാഷ പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങളിലൂടെയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ പുരോഗതിയിൽ പത്രങ്ങൾ വളരെയധികം നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇന്നത്തെ തലമുറയെടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം എല്ലാവരും സാങ്കേതിക വിദ്യയിലൂടെ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ അവന്നെ വായന കുറയുന്നതായിട്ട് കാണാം അത്കൊണ്ട് പ്രാദേശിക ഭാഷയിലുള്ള പത്രം എല്ലാ വീടുകളിലും ഇന്ന് അത്യാവശ്യമാണ് എല്ലാ കുട്ടികളേം കൊണ്ട് അത് കാണുന്നത് ഭാഷ തന്നെ മാ എന്താണ് അവൻ്റെ മനസ്സിൽ നമ്മുടെ ഭാഷ കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള പത്രം അവൻ വായിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വായനാശീലം ഉണ്ടെങ്കിൽ അവൻ ആദ്യമേ പ്രാദേശിക ഭാഷയിലൂടെ ഉള്ള പത്രങ്ങൾ വായിക്കുക നമ്മുടെ പല പല പുസ്തകങ്ങൾ വായിക്കുക അതിലൂടെ അമ്മക്ക് ഒത്തിരി അറിവ് നമുക്ക് നേടി തരുക നമുക്ക് അറിയാം രാവിലെ നമ്മുടെ പത്രങ്ങൾ ഓരോ വീടുകളിലും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഒരു ദിവസം വീട്ടിലൊക്കെ വിശ്രമം ജീവിതത്തിലിരിക്കുന്നവർക്ക് പ്രാദേശിക ഭാഷയിലുള്ള പത്രം കിട്ടുകയാണെങ്കിൽ അവർ അത്ര നേരം സമയം ചിലവിടുന്നത് അറിയുന്നതേയില്ല അവർ ധാരാളം മണിക്കൂറുകളോളം അവർ എല്ലാ കാര്യങ്ങളും ഈ പ്രാദേശിക ഭാഷയിലുള്ള പത്രത്തിലൂടെയാണ് അവർ അറിഞ്ഞു മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പ്രാദേശിക ഭാഷ പത്രങ്ങളിലൂടെ ധാരാളം ക മ സാങ്കേതിക വിദ്യയെക്കാൾ ഉപരി അവർ ഈ പ്രാദേശിക ഭാഷ പത്രങ്ങളിലൂടെ അവർ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതിലൂടെ അവൻ്റെ അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാം പത്രങ്ങളിലൂടെ ഒത്തിരി അറിവ് മനുഷ്യനേകുന്ന അവൻ്റെ ചുറ്റുപാട് ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങൾ ഒത്തിരി അറിവ് ഈ പത്രം കൊണ്ടാണ് കിട്ടുന്നത് പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അറിവ് നേടുന്ന പസ്സിൽസുകൾ ആയിക്കോട്ടെ ക്വിസ് കോമ്പറ്റീഷനുകളാവട്ടെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രാദേശിക ഭാഷയിലുള്ള പത്രം എല്ലാവർക്കും അത്യാവശ്യമായൊരു കാര്യമാണ്